ഇപ്പോൾ നമ്മുടെ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന് വേണ്ടീട്ട് കുറെ പ്രയത്നിച്ച കുറെ ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ പണ്ട് നമ്മുടെ നാടെന്നൊക്കെ പറഞ്ഞാൽ ബ്രിട്ടീഷ്ക്കാരുടെ കയ്യിലായിരുന്നു അപ്പോൾ ഒരു ചരിത്ര സംഭവം തന്നെയായിരുന്നു അത് ബ്രിട്ടീഷ്ക്കാരെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ വായനാടിനേം മാത്രമല്ല ഇന്ത്യേനെ മൊത്തം കീഴടക്കി വന്നിട്ടുണ്ടായിരുന്ന ഒരു ആൾക്കാരായിരുന്നു നമ്മൾ ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ്ക്കാർ അപ്പോൾ അവരടുത്തിന്ന് നമ്മളെ മോചിപ്പിച്ച കുറെ ആൾക്കാരുണ്ട് ഇന്ത്യയിൽ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും പക്ഷേ നമ്മുടെ വയനാടിൻ്റെ നായകൻ എന്നുപറഞ്ഞാൽ പഴശ്ശിരാജയാണ് പഴശ്ശിരാജ നമ്മുടെ വയനാടിനെ പൂർണ്ണമായിട്ടും രക്ഷിക്കുകയാണ് ചെയ്തത് നമ്മുടെ നാടിനൊക്കെ നല്ല ബ്രിട്ടീഷ്ക്കാരുടെടുത്തുന്നൊക്കെ നല്ല രീതിയിൽ ചെറുത്ത് നിന്ന് പുള്ളി നല്ല രീതിയിൽ ഫൈ ഫൈറ്റൊക്കെ ചെയ്ത് അങ്ങനെ ര രക്ഷപെടാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു അങ്ങനെയൊരു ആളായിരുന്നു അപ്പം പഴശ്ശിരാജേൻ്റെ വെച്ചിട്ട് സിനിമ വരെ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ മമ്മൂട്ടിയാണ് അതിനകത്ത് നായകൻ ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്കെന്നു പറഞ്ഞുകഴിഞ്ഞാൽ വലിയകാര്യമായിട്ട് ഈ പഴശ്ശിരാജ ആരാണെന്നോ ഒന്നും അറിയില്ലായിരുന്നു പഴശ്ശിരാജാന്ന് പറഞ്ഞൊരാൾ ഉണ്ടായിരുന്നു പക്ഷേ പഴശ്ശിരാജ എങ്ങനെയാണ് മരിച്ചത് എന്നൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഇതിൽ കണ്ടപ്പം നമുക്ക് ഏകദേശം അങ്ങനെയൊക്കെയാണ് മരിച്ചേന്നൊരു അറിവ് അത്രയാണ് ഉണ്ടായിട്ടുള്ളൂ പഴശ്ശിരാജയാണ് നമ്മളെ ഒരു പ്രചോദനമായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തീന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പുള്ളിനേക്കുറിച്ച് നമ്മൾ നല്ലരീതിയിലുള്ള അഭിമാനിക്കുന്ന എല്ലാം അഭിമാനിക്കുന്നുണ്ട് എന്തായാലും ഇപ്പം പറഞ്ഞെന്നുവെച്ചാൽ പുള്ളിയാണ് നമ്മുടെ നാട്ടിനെ ബ്രിട്ടീഷ്ക്കാരിൽ നിന്ന് രക്ഷിച്ചത്